എൻ്റെ ഏറ്റവും പ്രിയ്യപ്പെട്ട കായിക ഇനം ക്രിക്കറ്റാണ് ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും പ്രിയ്യപ്പെട്ട ഒരു ബാറ്റ്സ്മാനാണ് എൻ്റെ സെവാഗ് എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ നമ്മളൊരു നയൻ്റി നയൻ്റീസ് കിഡ്സിനെ സംബന്ധിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏത് ക്രിക്കറ്റ് പ്രേമിയോടും ചോദിച്ച് കഴിഞ്ഞാൽ അവരുടെ രോമാഞ്ചമായിരുന്നു സെവാഗ് എന്ന് പറയുന്ന ആ ബാറ്റ്സ്മാൻ ഇപ്പം തൊണ്ണൂറ്റി ഒമ്പതാം ബോളിൽ നിൽക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ് അടുത്ത ബോൾ മുട്ടാതെ ഒരു റണ്ണ് പോലും അങ്ങനെയല്ല ഒരു റണ്ണ് കിട്ടുകയാണെങ്കിൽ കൂടി അയാൾക്ക് സെഞ്ച്വറി അടിക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും ആ ബോൾ നമുക്ക് സിക്സ് അടിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനത് സിക്സ് അടിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹം അത് തീർച്ചയായും സിക്സ് അടിച്ചിരിക്കും അത്രയും ഒരു അഗ്രസ്സീവായിട്ടുള്ള പ്ലെയറായിരുന്നു ഫസ്റ്റ് ബോളിൽ സിക്സ് അടിക്കാൻ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് എല്ലാ കളിയിലും എല്ലാ ഫസ്റ്റ് ബോളിലും സിക്സ് അടിക്കാൻ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ സേവാഗിനെ സേവാഗിനെ പോലെ ബേ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻമാർ പോലും ലോകത്തിൽ ഉണ്ടായിരുന്നില്ല